മലപ്പുറം ജില്ലയിൽ സ്ത്രികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും അവർ ഒരുപാട് തരത്തിലുള്ള വിവേചനങ്ങൾ നേരിടുന്നുണ്ട് പത്താം ക്ലാസ്സിൻ്റെയും അതുപോലെ പ്ലസ് ടു പരീക്ഷകളുടെയുമെല്ലാം മാർക്ക് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഉയർന്ന മാർക്കോടു കൂടെ വിജയിക്കുന്നത് ആൺകുട്ടികളേക്കാൾ ഒരുപാട് മുന്നിലാണ് പെൺകുട്ടികൾ പക്ഷെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തുമ്പോൾ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ അധികം കുറയുകയും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലേക്ക് എത്തുമ്പോൾ സ്ത്രികളുടെ സാന്നിധ്യം പുരുഷന്മാരേക്കാൾ ഒരുപാട് താഴെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വലിയ വെല്ലുവിളികൾ തന്നെയാണ് അവസരങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സമൂഹം സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള അവസരങ്ങൾ പ്രധാനം പ്രധാനം ചെയ്യുന്നുണ്ട് പക്ഷെ അവസരങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ പുരുഷനെ അപേഷിച്ച് സ്ത്രികളുടെ എണ്ണം വളരെ കുറവാണ് അവരെ സമൂഹം അനുവദിക്കുന്നില്ല എന്നത് വലിയൊരു ഫാക്ടർ ഫാക്ടറായിട്ട് നില നിൽക്കുന്നുണ്ട് പെൺകുട്ടികളുടെ വിവാഹം പതിനെട്ട് വയസ്സ് മാക്സിമം ഇരുപത്തൊന്ന് വയസ്സ് ആകുമ്പഴേക്കും പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയപ്പിക്കുക വിവാഹം കഴിപ്പിക്കുക എന്നതിനാണ് സമൂഹം കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് വളരെ വളരെ ഒരു വലിയ പ്രശ്നമാണ് അതുപോലെ വിവാഹത്തിന് ശേഷം കുട്ടി കുടുംബം എന്ന നിലയിലേക്ക് മാത്രം സ്ത്രീകൾ സ്ത്രീകൾ ഒതുങ്ങി പോവുകയും ഒതുക്കി നിർത്തുകയും ചെയ്യുന്നുണ്ട്